ഒരു കുടുംബത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് വളരേ നല്ലതാണ് കാരണം എല്ലാസമയത്തും ഒരുപോലെ സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല ഒരു ഒരു അപകടം പറ്റിയാൽ നമ്മടടുത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മൾ വളരെ അധികം ബുദ്ധിമുട്ടിലാവും പക്ഷേ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമക്ക് അതിൽ നിന്ന് കിഴിവുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ എന്തായാലും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ് ഒരു കുടുംബത്തില് ഒരാൾക്കെങ്കിലും ഉണ്ടായാൽ അത് നല്ലതാണ് കാരണം ആ ഒരാളുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ട് തന്നെ ആ കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവർക്കും സഹായം കിട്ടുന്നതാണ് എൻ്റെ കുടുംബത്തിൽത്തന്നെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഒരു സുഖമില്ലായ്മ വന്നപ്പോൾ ആ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടാണ് നമ്മൾ അതിനെ അതിജീവിച്ചത് കാരണം എൻ്റെ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാനൊരു ചെറിയൊരു അധികം സാമ്പത്തികമില്ലാത്ത കുടുംബത്തിലായതുകൊണ്ട് തന്നെ എൻ്റടുത്ത് വേണ്ട ആവശ്യത്തിന് വേണ്ട പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനീ ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗിച്ചാണ് എൻ്റെ ആവശ്യങ്ങളൊക്കെ ഇതാക്കിയത് അധികം അധികം അധികമൊന്നും നമ്മള് ചിലവാക്കേണ്ടി വരില്ല എന്നാലും നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് നല്ല യൂസ്ഫുൾ ആണ്